ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറയാറുള്ളതോ അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കാതുള്ളതോ ആയിട്ടുള്ള ഒരാളല്ല രാഷ്ട്രീയത്തിലും ഭരണ ഭരണകൂടത്തെ പറ്റിയും ക്ഷേമത്തെ പറ്റിയുള്ള വാർത്തകൾ ഞാൻ കാണാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയവും അതിൽ കടന്ന് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് അത്ര തൃപ്തിയല്ല ഞാൻ തൃപ്തി പ്രകടിപ്പിക്കുന്നില്ല കാരണം അവർ അവരെല്ലാം അവരുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവൃത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഷ്ടിയത്തിനെ പറ്റിയുള്ള വാർത്തകൾ ഞാൻ ഒരു മിക്കതും ഞാൻ വിട്ടുകളയാറാണ് ഉള്ളത് അതിൽ ഞാൻ അതിൽ എനിക്ക് താല്പര്യമില്ല എന്നാൽ ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളല്ല പക്ഷേ എനിക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സംസാരിക്കുന്നതിലും താല്പര്യമില്ല പിന്നെ ഭരണകൂടത്തെയും ക്ഷേമത്തെയും പറ്റിയുള്ള വാർത്തകൾ ഞാൻ കാണാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ശരിയാണ് പിന്നെ ഭരണകൂടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭരണകൂടത്തിൽ ഒരുപാട് ക്രൈമുകൾ അവരുടെ തെളിവ് ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെയും ഇതിൻ്റെയുമൊക്കെ പേരിൽ ഒരുപാട് കേസുകൾ മാറി മാറി പോകുന്നുണ്ട് അതൊക്കെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു എന്താണ് തെറ്റായ ഒരു മുഖം മുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വാർത്തകൾ ഇന്നത്തെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം വളരെ മോശമായ അഭിപ്രായമാണ് കാരണം ടെലിവിഷൻ ചാനലുകകൾ വാർത്ത ചാനലുകളിലൂടെ വരുന്ന വാർത്തകളോട് ഞാൻ തൃപ്തി പ്രകടിപ്പിക്കുന്നില്ല കാരണം അവർ അവരുടെ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ക വാർത്തകളെ വളച്ചൊടിച്ച് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ആഫ്റ്റർ കാണുന്നവർക്ക് അത് അത്രയും ആ അതാണ് ശരി എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവർ വാർത്തകളെ വളച്ചൊടിച്ച് അത് പ്രേക്ഷകർക്ക് മുന്നിലാണ് എത്തിക്കുന്നത് അങ്ങനെയുള്ള വാർത്തകളോട് ഞാൻ അസംതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് എനിക്ക് അങ്ങനെയുള്ള വാർത്തകൾ കാണുന്നതിനോട് താല്പര്യമില്ല പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ എത്തുന്ന വാർത്തകൾ എത്ര നൂറ് ശതമാനം ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പ്രാദേശികമായ കുറച്ച് വാർത്തകൾ എനിക്ക് കിട്ടുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അന്വേഷിക്കാൻ കഴിയും കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളായിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് എൻ്റെ ഒരു നോ എൻ്റെ ഒരു അന്വേഷണത്തിലൂടെ എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതിന് പുറത്തുള്ള വാർത്തകൾ എങ്ങനെയാണ് ഏതാണെന്നുള്ളതിൽ ഒരു വ്യത്യാസം വരും അത് കൊണ്ട് ഞാൻ വാർത്തകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്